എനിക്ക് മലയാള സിനിമയാണേറ്റവും കൂടുതലിഷ്ടം മലയാളസിനിമയിൽ എല്ലാ അഭിനേതാക്കളെയൊന്നും എനിക്കിഷ്ടമില്ല എങ്കിലും നമ്മുടെ ഒരുമാതിരി നല്ല മാന്യമായ രീതിയിലിപ്പം വസ്ത്രധാരണം നടത്തുന്ന ഒത്തിരി സിനിമകളും ഒക്കെയുണ്ട് അവരിലതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എന്നാലും ഞാനിതുവരെ അവർ അവരിന്റെ വസ്ത്രധാരണം നമ്മളിതുവരെ അങ്ങനെ ഉപയോഗം അങ്ങനെയില്ല അതിൽ നമുക്കിണങ്ങുന്ന വസ്ത്രം ഏതാണോ അത് ധരിക്കുകയെന്നുള്ളതേ ഉളളൂ എന്റേത് എനിക്ക് കൂടുതലിഷ്ടം സാരിയും ചുരിദാറും ധരിക്കുന്നതാണ് അതുപോലെ എനിക്കിറുക്കമുള്ള ഇതും പാൻ്റുകളോ അങ്ങനെയൊന്നും ഇഷ്ടമല്ല സാധാരണ ലൂസായി കിടക്കുന്ന പാന്റുകളും പിന്നെ സാരിയാണെങ്കിലും നല്ല ഇതിലായിട്ടുടുക്കുന്നതൊക്കെയാണെനിക്കിഷ്ടം ഫുൾ കൈ ഷാളും ബ്ലൗസുമൊക്കെ ഇട്ട് ഇപ്പം ചുരിദാറാണെങ്കിലും ഞാൻ ഉപയോഗിക്കാറുള്ളത് ഫുൾ കൈ മാത്രമേ ഉപയോഗിക്കാറുളളൂ പിന്നെ മലയാളസിനിമയിൽ കൂടുതലും നല്ല വേഷങ്ങളാണല്ലോ നമുക്ക് കാണാറുള്ളത് കൂടുതലും സാരിയും ചുരിദാറും ഒക്കെയുള്ളത് ഒക്കെയങ്ങനെയൊക്കെ എനിക്കിഷ്ടമാണ് പിന്നെയല്ലാത്ത കൂടുതലും ഓരോരുത്തർക്കും ഓരോ വസ്ത്രധാരണമല്ലേ ഇഷ്ടപ്പെടുന്നത് അങ്ങനെ സിനിമ കണ്ട് നമ്മളങ്ങനെ വസ്ത്രധാരണം നടത്താറില്ല നമുക്കിണങ്ങുന്നതേതാണോ നമ്മളെ കണ്ടാൽ മറ്റുള്ളവർ കുറ്റം പറയരുത് എന്നൊക്കെയുള്ള രീതിക്കുള്ള വസ്ത്രധാരണം മാത്രമേ ഞാനും ധരിക്കാറുള്ളു പിന്നെ സിനിമയിൽ ഇപ്പം സിനിമ പോലെ നമുക്ക് ജീവിതത്തിൽ നടക്കത്തില്ലല്ലോ പിന്നെ സിനിമക്കാരിടുന്നു വസ്ത്രമിടുന്ന അവർ പറഞ്ഞുപോവും പക്ഷേ നമ്മൾ വസ്ത്രധാരണം ഇട്ട് കഴിയുമ്പോഴത്തേക്കിന് മറ്റുളവരെന്താ പറയുന്നത് അതൊക്കെ നോക്കും പക്ഷേ എനിക്ക് കൂടുതലിഷ്ടം സാരിയല്ല ചുരിദാറാ അങ്ങനെ ഉപയോഗിക്കുന്നതാണ് കൂടുതലിഷ്ടം നമുക്കതാണ് കേരളത്തിലുപയോഗിക്കുന്നവർക്കും നമുക്കങ്ങനെ മലയാള സിനിമയിലൊട്ടുമിക്ക സിനിമകളിലേയും വസ്ത്രധാരണം വലിയ കുഴപ്പമില്ല അങ്ങനെയൊക്കെ പോവണുണ്ട് പഴയ സിനിമകളിലെ ഡ്രസ്സുകളൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ ഓരോ തലമുറ മാറി മാറി വരുന്നതിൻ്റെ അനുസരിച്ചുള്ള വസ്ത്രധാരണങ്ങൾ വരും പിന്നെ ഫാഷനിലാണെങ്കിലും ഫാഷൻ ഒത്തിരി ഫാഷനായിട്ട് നടക്കാറൊന്നുമില്ല നടക്കുന്നതെനിക്കിഷ്ടമല്ല പിന്നെ ഒരുമാതിരി ഫാഷൻ ഇതൊക്കെ ആയി കഴിയുമ്പോഴത്തേനും പിന്നെ മറ്റുള്ളവർ നമ്മൾ ഫാഷനായി അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞുവെന്നൊക്കെ പറയാറുള്ളതുകൊണ്ട് ഞാനങ്ങനങ്ങനെയൊന്നും നമ്മളിതുവരേയും നോക്കാറുമില്ല നമുക്കെന്ത് ഏത് വസ്ത്രമാണോ നമുക്കിണങ്ങുന്നത് ആ വസ്ത്രം മാത്രമേ നമ്മളുപയോഗിക്കാറുളളൂ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാത്രം വസ്ത്രധാരണം നടത്തുന്നത് ശരിയല്ലല്ലോ അപ്പോൾ പിന്നെയങ്ങനെ ഒത്തിരി ആരെക്കൊണ്ടും പറയിപ്പിക്കരുത് നമ്മൾ നല്ല രീതിയിൽ നടക്കുക എന്നുള്ളതാണ് പക്ഷേ നമുക്കിഷ്ടം ഓരോ ഓരോ വ്യക്തികൾക്കും ഓരോ ഇഷ്ടാനുസരണമാണ് നമ്മൾ ഡ്രസ്സിങ്ങ് ചെയ്യാറുള്ളത് അപ്പം അതുകൊണ്ട് പിന്നെ ഇപ്പം നമുക്ക് മറ്റുള്ളവരോട് ഇന്ന വസ്ത്രമേ ധരിക്കാവൂ എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ലല്ലോ അപ്പം പിന്നെ നമ്മൾ അവർക്കെന്തിഷ്ടപ്പെടുന്നോ അവരത് ധരിക്കട്ടെ നമുക്ക് നമ്മുടെയിടിഷ്ടത്തിന് നമ്മളോടിപ്പം ഒരാൾ പറയുകയാ ഇന്ന വസ്ത്രം ധരിക്കണം നമുക്കിഷ്ടമല്ലല്ലോ ഇഷ്ടമാണെങ്കിൽ ധരിച്ചാൽ പോരെ അങ്ങനേയും കുഴപ്പമില്ല പിന്നെ ഓരോന്ന് ഓരോന്ന് വസ്ത്രം ധരിച്ചാലും നമ്മളെങ്ങനെയൊക്കെ വസ്ത്രം ധരിച്ച് നടന്നാലും കുറ്റം പറയുന്നവരൊക്കെയുണ്ട് അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉളളൂ പിന്നയങ്ങനെ വലിയ കുഴപ്പമില്ലാതെയൊക്കെ വസ്ത്രം ധരിക്കുക പോകുക എന്നൊക്കെ ഉളളൂ മറ്റുള്ളവരെ മറ്റുള്ളവരെക്കൊണ്ട് പറയിപ്പിക്കുക നമ്മൾ മാന്യമായ ഡ്രസ്സ് ധരിക്കുക നമ്മളിപ്പം കേരളത്തിൽ മലയാള സിനിമ കണ്ടെന്നും പറഞ്ഞതുകൊണ്ട് നമുക്കാ സിനിമയിലെപ്പോലെ ഡ്രസ്സ് ധരിക്കണമെന്നോ അല്ലെങ്കിൽ ഇന്ന് നമുക്കെന്തിഷ്ടപ്പെടുന്നോ നമ്മളത് ധരിക്കുക എന്നുള്ള ഒറ്റ ഇത് മാത്രേമേ എനിക്കുളളൂ പിന്ന ചിലർ ചില വസ്ത്രങ്ങളിടുമ്പം നമ്മൾക്കിഷ്ടപ്പെടാറുണ്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നല്ല സിനിമയിൽ ചില ചില സിനിമകളിലൊക്കെ നല്ല വസ്ത്രധാരണങ്ങളില്ലേ കുഴപ്പമില്ലാത്ത പഴയ സിനിമകളൊക്കെ നമുക്ക് കുഴപ്പമില്ലാത്തതുകൊണ്ട് നമ്മളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് പക്ഷേ നമുക്ക് അതിന് അവർ സിനിമയിലിട്ടത് പോലെ തന്നെ ഇടണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ തന്നെ നടക്കണമെന്നൊന്നും നമുക്കത് ചിന്തിക്കാറേയില്ല നമ്മളതിനെപ്പറ്റിയൊന്നും അതുകൊണ്ട് പിന്നെ ഞാനും നമ്മൾ സിനിമ കണ്ട് കഴിഞ്ഞ് അത് പോയി അടുത്ത സിനിമ വരും അപ്പം അവർ അവരുടെ മേഖല അതായത് കൊണ്ടവർക്ക് പിന്നെ ഡ്രസ്സ് ധരിച്ചാലും ആ സിനിമയിലുളളൂ അഭിനയിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരിത് കൊണ്ട് മാത്രമാണവരതൊക്കെ ചെയ്തുപോകുന്നത് ഓരോരുത്തരും ഓരോ സാഹചര്യത്തിൽ വസ്ത്രധാരണം നടത്തുന്നതായിരിക്കാം നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ നമ്മളവർ സിനിമയിൽ ഇന്ന വസ്ത്രം ഇട്ടു എന്നും പറഞ്ഞതുകൊണ്ട് നമ്മൾ അതായ വസ്ത്രമൊന്നും ഇട്ടുകൊണ്ട് നമുക്ക് നടക്കുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പൊന്നും ഇല്ല ഇതുവരെ ശ്രദ്ധിക്കുക ശ്രമിക്കാറുമില്ല അങ്ങനെയൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ ഇന്ന ആൾ ഇന്ന ഡ്രസ്സല്ലേ ഇട്ടത് അതുപോലെ നമുക്ക് ഇടണം നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ നമുക്കേത് വസ്ത്രം ഇണങ്ങുന്നോ ആ വസ്ത്രം നമ്മൾ ധരിക്കുക മാന്യമായ വസ്ത്രം ധരിക്കുകയെന്നുള്ള ഒറ്റ ഇത് മാത്രമേയുളളൂ അല്ലാതെയിപ്പം സിനിമയിൽ കണ്ടു അതുകൊണ്ട് ആ വസ്ത്രമിടാൻ അതൊന്നും നമുക്ക് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറുമില്ല അങ്ങനെ ഓരോ ഇതായിട്ട് സിനിമയിൽ കണ്ട ഇത് ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ അല്ലെങ്കിൽ എനിക്കാ സിനിമ നടിയെ ഇഷ്ടമല്ലേയെന്ന് പറഞ്ഞാൽ ഇഷ്ടമാ അത് കൊണ്ട് ഞാനീ വസ്ത്രമേ ധരിക്കൂളളൂ എന്നൊന്നും നമുക്കൊന്നുമില്ല നിർബന്ധമൊന്നുമില്ല നമ്മൾക്കിണങ്ങുന്ന വസ്ത്രമേതാണോ അത് നമ്മൾ പിന്നെ അല്ല ഇനി ഒരാൾക്ക് ആ വസ്ത്രം ഇട്ടുകൊണ്ട് പോയെന്നാ നല്ലതാ അതുപോലെ തന്നെ എനിക്ക് അങ്ങനെയുള്ളവരോടൊന്നും അല്ല നമുക്കേത് വസ്ത്രമിണങ്ങുന്നോ ആ വസ്ത്രം മാത്രമുപയോഗിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ